ആ ഈ കുട്ടീൻ്റെ രജിസ്ട്രേഷൻ ചെയ്തോ അതിന് രജിസ്ട്രേഷൻ ചെയ്തോ ഏ ഓൺലൈൻ ആയി അപേക്ഷിച്ചില്ലേ ആ ആ എന്തായി എന്നിട്ട് അപേക്ഷിച്ചിട്ട് എന്തായി റിസൾട്ട് ഒന്നും ഇല്ലേ ഓൺലൈന ആയിട്ട് അല്ലേ അപേക്ഷിച്ച് ആ ജനറൽ രജിസ്ട്രേഷൻ അത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ഇതാക്കില്ലേ അപേക്ഷിച്ചില്ലേ ആ ആ ആ അപ്പോൾ റെഫറൻസ് നമ്പർ എത്രയാണ് ആ ആ റെഫറൻസ് നമ്പറ് പറഞ്ഞോളി ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് നോക്കാൻ വേണ്ടി ഞാൻ രജിസ്ട്രേഷൻ ഓഫീസക്കൊന്നെ വിളിച്ചോളാം ആ ഞാൻ വിളിക്കും വിളിക്കും ഉറപ്പ് ഉറപ്പ് വിളിക്കും ആ എന്തായാലും വിളിക്കും എന്തായാലും വിളിക്കും ആ ഇത് ജനറൽ രജിസ്ട്രേഷനല്ലേ ആ നിങ്ങൾ ഓൺലൈനി എത്തി അപേക്ഷിച്ച് ആ ഞാൻ എന്തായാലും നിങ്ങളുടെ നമ്പറും തന്നാണല്ലോ ഇന്ന് എന്തായാലും വിളിച്ച് ചോദിക്കാം കുട്ടിൻ്റെ ജെനറൽ രെജിസ്ട്രേഷനിൻ്റെ അപേക്ഷ റെഫറൻസ് നമ്പര് ഇത് തന്നെയാണല്ലോ അപ്പം ഞാൻ അതുവഴി ഞാൻ രെജിസ്ട്രേഷൻ ഓഫീസക്ക് വിളിച്ച് കണ്ട് എന്താക്കാം ഞാൻ ചോദിച്ചോളാം എന്തായി അപ്ഡേഷൻ എന്തായി എന്നൊക്കെ ഞാൻ ചോദിച്ചോളാം എന്തായാലും ഞാൻ ചോദിക്കും ആ ഞാൻ ചോദിക്കും ഉറപ്പ് ഉറപ്പ് ആ ഞാൻ രെജിസ്ട്രേഷൻ ഓഫീസക്ക് വിളിക്കാം ഉറപ്പ് ഉറപ്പ് ഓക്കെ